ഇപ്പോൾ നിലവിൽ കായിക മേഘലയിൽ ആൺപെൺ വ്യത്യാസമില്ലാതെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ടു പോകുന്നത് പൊതുവേ ആണുങ്ങൾക്കും സ്ത്രീകൾക്കും ഒരു സമത്ത്വം നിലനിൽക്കുന്നുണ്ട് ആളുകൾ അതും പൊതുവേ ആളുകളത് നല്ല രീതിയ്ക്ക് നോക്കിക്കാണുന്നുമുണ്ട് ഇപ്പോഴൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഒരൈറ്റത്തിന് പങ്കെടുക്കുന്ന ആ ആളുകളുടെ എണ്ണം പത്താണെങ്കിൽ അതിൽ അഞ്ചുപേരുടെ എണ്ണം സ്ത്രീകളും അഞ്ചുപേരുടെ എണ്ണം പുരുഷന്മാരുമായിരിക്കും ഇങ്ങനെ ഒരു സമത്ത്വം ഇവിടെ നിലനിർത്താൻ സാധിക്കും ആൺപെൺ വിത്യാസമില്ലാതെ കായിക ഇനങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ കഴിവുകൾ തെളയിക്കാനുള്ളൊരു അവസരമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും ഇതൊക്കെയാണ് തുല്യത നൽകുന്ന ഒരൂ മുൻഗണനകൾ പൊതുവേ ഇങ്ങനെയൊള്ള സമത്ത്വം നൽകുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഉണ്ടായാൽത്തന്നെ അത് പരിഹരിക്കപ്പെടുന്നുമുണ്ട് പൊതുവേ എല്ലാവർക്കും മാന്യമായിട്ടുള്ള രീതിയിലാണ് മാർക്കുകളും സ്ഥാനങ്ങളുമൊക്കെ നൽകുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തുല്യത നടപ്പാക്കുന്നുണ്ടെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നതുമാണ് ലിങ്കസമത്ത്വം സമൂഹത്തിൽ നടപ്പാക്കുന്നത് നമുക്കിതിലൂടെ വ്യക്തമാണ്